ഹൃദയത്തിൽ ഇമ്പമുള്ളതും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും നല്ല ട്യൂൺ അറേഞ്ച് ചെയ്യുന്നതും അർത്ഥമുള്ളതും ഒത്തിരി ഹൃദയത്തിന് സന്തോഷം നൽകുന്നതുമായ ഗാനമാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിന് നല്ല ഒരു ആനന്ദം നൽകുന്ന ഒത്തിരി ഏറെ പാട്ടുകൾ ഉണ്ട് നമ്മൾ പാടുമ്പോഴും നല്ല ഇമ്പമുള്ള പാട്ടുകളാണ് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത്

ഒത്തിരി കോമഡി ചേരുന്ന പാട്ടുകൾ ഒത്തിരി അർത്ഥവത്തുള്ള പാട്ടുകൾ

തെരഞ്ഞെടുക്കും അത് ഹൃദയത്തിനൊത്തിരി ആസ്വാദനം നൽകുന്നതാണ് പിന്നെ കേട്ടിരിക്കാൻ ഇമ്പമുള്ളത് അങ്ങനെയുള്ള പാട്ടുകൾ തെരഞ്ഞെടുക്കും ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന പാട്ടുകൾ ഒത്തിരി നമ്മൾ കെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ ഒത്തിരി ആനന്ദം കൊള്ളുന്ന പാട്ടുകൾ തെരഞ്ഞെടുക്കും പിന്നെന്താ ആണ് തെരഞ്ഞെടുക്കുക അതിന് അതിലുപരി നമ്മൾ നമ്മൾ നമ്മളെ സ്പർശിക്കുന്ന പാട്ടുകളും ഉണ്ട് അതെല്ലാം നമ്മൾ തെരഞ്ഞെടുക്കും പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനൊരു ഇമ്പമുണ്ടാകണം ആസ്വാദനമുണ്ടാകണം രസമുണ്ടാവണം അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ തെരഞ്ഞെടുക്കും പിന്നെ അതിലുപരി നമ്മൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന പാട്ടുകളായിരിക്കും തെരഞ്ഞെടുക്കുന്നത് റെക്കോർഡ് ചെയ്യാനും അത് തന്നെയാണ് റെക്കോർഡ് ചെയ്യുമ്പഴും നല്ല പാട്ടുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് തെരഞ്ഞെടുക്കും അങ്ങനെ ആഗ്രഹിക്കുന്നു